ഇപ്പോള് ഞാൻ വാങ്ങിച്ച എൻ്റെ ഒരു പ്രൊഡക്ട് റിവ്യൂ മീൻസ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരെക്സ്പീരിയൻസ് എന്നു പറയുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഒരു മൊബൈൽ ഫോൺ ഞാനത് മൊബൈൽ ഫോണിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല മൊബൈൽ ഫോൺ വാങ്ങിച്ചിരുന്നു ആ മൊബൈൽ ഫോൺ ഞാൻ ഓൺലൈനില്നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞ് അതിൽ പറഞ്ഞിരിക്കുന്ന പല ഫീച്ചേഴ്സും അതിലുണ്ടായിരുന്നില്ല അതുമാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് ആ ഫോൺ ഹാങ്ങ് ആയി പോവുകയും നമ്മള് യൂസ് പെട്ടെന്ന് ചൂടാവുകയും ചെയ്തു പക്ഷേ അത് നമ്മള് നമ്മള് ഓൾറെഡി ചാർജ്ജില് ഇടുമ്പോള് തന്നെ അത് ചൂടാകുന്നുണ്ട് അതല്ലാതെ നമ്മളൊരുപാട് ഓവർ യൂസ് ചെയ്യുമ്പോള് തന്നെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട് ഹീറ്റ് വരുന്നുണ്ട് അപ്പോള് അത് അത് പിന്നീടത് പൊട്ടിത്തെറിക്കാനോ അതിനുള്ള കാര്യത്തിലേക്ക് നയിക്കുമെന്നെനിക്ക് തോന്നി അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി വളരെ പുവറാണ് വളരെ ഹൈ സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനാ ഫോൺ വാങ്ങിച്ചത് പക്ഷേ ഫോൺ വന്ന് കഴിഞ്ഞ് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോള് എനിക്ക് തോന്നിയത് വളരെ പൂവർ ക്വാളിറ്റിയാണ് സൗണ്ടിനുള്ളത് ഈ വളരെ ക്വാളിറ്റി കുറവുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ആ ഫോണിനെ തോന്നിയത് പിന്നെ പിന്നെയും കുറച്ചുകൂടി ആ ഫോൺ നന്നായിട്ട് നമ്മള് വാങ്ങിക്കുമ്പോള് കുറച്ച് കൂടിയും നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ല ഒരു ടെസ്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുമ്പോഴാണ് കുറച്ചുംകൂടി നല്ലതായിട്ട് വരിക അതാകുമ്പോള് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുംകൂടി വ്യക്തമായിട്ട് അറിയാന് പറ്റും അപ്പോള് ഞാനിപ്പോള് പറയാം ഈ ഫോൺ ഫോൺ വാങ്ങിച്ചത് വളരെ നെഗറ്റീവ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നൽകിയത്